ഫോട്ടോഗ്രഫി എന്നൊരാഗ്രഹം മനസ്സില് ഉണ്ടായപ്പോൾ തൊട്ടാണ് ഞാന് യാത്രകള് ചെയ്യാന് തന്നെ തുടങ്ങിയത് യാത്രകള് പോകണം ചിത്രങ്ങള് പകര്ത്തണം അവ എനിക്ക് ഇന്സ്ടഗ്രാമില് അല്ലേൽ എന്റെ പേജുകളില് പോസ്റ്റ് ചെയ്യണം എനിക്കൊരു പോർട്ട് ഫോളിയോ ഉണ്ടാക്കണം എനിക്ക് നല്ലൊരു ലൈഫ് ഫോട്ടോഗ്രാഫിയില് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങള് കൊണ്ടാണ് ഞാന് മെയിന്ലി യാത്രകള് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങള് ഞാന് കറങ്ങിയിട്ടുണ്ട് ഇപ്പോള് ഒരുപാട് യാത്രകള് പോയിട്ടുണ്ട് ഞാന് മെയിന്ലി ഫോട്ടോ എടുക്കാന് പോകുന്ന സ്ഥലങ്ങള് മറ്റേ ഹില് പ്ലെയിസുകള് മലം മലംപ്രദേശങ്ങള് മൊട്ടക്കുന്നുകള് എനിക്ക് ലാന്ഡ്സ്കേപ്പ് ഫോട്ടോസ് ഒരുപാട് പ്രകൃതിയെ നിറഞ്ഞ ഒരുപാട് ഫോട്ടോസ് എനിക്ക് ഒരുപാട് ഇഷ്ട്ടമാണ് അതുപോലെതന്നെ ഞാന് പോകുന്ന സ്ഥലങ്ങളാണ് ചന്തകള് കാരണം ഒരുപാട് ആള്ക്കാരുടെ ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്ന സ്ഥലമാണ് ഒരുപാട് പിള്ളേ കുട്ടികളുടെയും പണിയെടുക്കുന്നവരുടെയും ഒരുപാട് കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ എല്ലാവരുടേയും ഫോട്ടോസ് പോർട്രെയ്റ്റ്സ് നമുക്ക് ലഭിക്കുന്ന സ്ഥലമാണ് ച്ചാ മാര്ക്കറ്റുകള് ചന്തകള് അങ്ങനത്തെ സ്ഥലങ്ങള് അതുപോലെതന്നെ കളിസ്ഥലങ്ങള് പ്ലേ ഗ്രൗണ്ട്സ് അവിടെയൊക്കെ ഞാന് പോകാറുണ്ട് അവിടെ നമുക്ക് ആള്ക്കാരുടെ റിയലായിട്ടുള്ള ചിരിയും കളികളും അവര് മിംഗിൾ ചെയ്യുന്നതും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും എല്ലാം നമുക്ക് അവിടുന്ന് കവർ ചെയ്യാൻ സാധിക്കും